കുറച്ച് പച്ചക്കറി എടുക്കാനായിരുന്നു ഇപ്പം എല്ലാത്തിനൊക്കെ എന്താ റേറ്റ്ന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു പുതിയൊരു കാൻറ്റീൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് അതായത് പിന്നെ ആഴ്ചേലാഴ്ച്ചേൽ പച്ചക്കറി വേണം അപ്പം നിങ്ങൾ എന്താ നമുക്ക് കടത്തിലൊക്കെ തരുവോ അല്ലാ എല്ലാം റെഡി ക്യാഷായിട്ട് വേണോ ആ നമുക്കീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൻറ്റീനിൽ പിന്നെ പൈസ കിട്ടുമ്പോൾ നമുക്ക് ആഴ്ചേൽ ആഴ്ചേൽ എടുക്കാനാണ് അപ്പോൾ ഒരുമിച്ച് പൈസ ചിലപ്പോൾ തരാൻ ഉണ്ടായിന്നു വരില്ല നമ്മൾ മാക്സിമം നമ്മൾ തരാൻ നോക്കും പക്ഷേ നമുക്ക് തക്കാളി വേണം അതായത് സാമ്പാർ കഷ്ണങ്ങളെല്ലാം വേണം തക്കാളി ഉള്ളി ഉരുളക്കിഴങ്ങ് പിന്നെ ചേന ചേമ്പ് മത്തൻ എളവൻ അങ്ങനെ എല്ലാം വേണം ആ ആഴ്ചേലാഴ്ചേൽ വേണം നിങ്ങൾ ആഴ്ചേൽ നമുക്കിവിടെ എത്തിച്ച് തരാൻ പറ്റുമോ അതോ നമ്മൾ വരൽ റിസ്ക്കായിരിക്കും കാരണം നമുക്കിവിടെ ആറ് മണിയാവുമ്പം അതായത് ക്യാൻറ്റീനിൽ എത്തണം അപ്പം നമുക്കതിൻറ്റെ ഇടക്ക് വരാൻ നമ്മൾ മൂന്ന് പേരേയുള്ളൂ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഇടയിൽ വരാൻ പറ്റില്ല അപ്പം നിങ്ങളാരെങ്കിലും എന്നാൽ നമുക്ക് അതിന് നമ്മൾ വേറെ പൈസ തരണോ അതോ വണ്ടിക്കൂലിക്ക് നമ്മൾ വേറെ പൈസ തരണോ അതോ നമുക്ക് ആ ആ ആ എത്ര എത്ര റേറ്റ് കുറയും നമ്മളിവിടെ മാനന്തവാടി അതായത് മാനന്തവാടി ഗവണ്മെൻറ്റ് കോളേജിലേക്കാണേ ആ ആ ആ ആ ഓക്കെ അല്ല നിങ്ങൾ മാനന്തവാടി എങ്ങാനും ആ ഹാ ആ ആഹാ ഓക്കെ

ആഹാ അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ചത്തേക്കുള്ള പച്ചക്കറി നമ്മടടുത്ത് ഉണ്ട് അപ്പം അടുത്ത ആഴ്ചത്തേക്ക് ഞാൻ അതായത് ഈ ആഴ്ച ഒരു ഞാറാഴ്ച അതായത് വെള്ളിയാഴ്ച വരെ ഉള്ളത് ഉണ്ട് ഇനിയിപ്പോൾ ഓണമല്ലേ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് മതി അപ്പോൾ ഞാനിത് ഓണം കഴിഞ്ഞിട്ടുള്ള തൊട്ട് നിങ്ങളടുത്ത് ഓർഡർ ചെയ്യാം നിങ്ങൾ മാനന്തവാടി എങ്ങാനും കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊണ്ടത്തരാണെങ്കിൽ ഉപകാരമായിരുന്നു അങ്ങനെയാവുമ്പോൾ നമുക്ക് ആ ആ ആണോ ആ അങ്ങനെന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമുക്കെന്തായാലും ആ ഓക്കേ ഓക്കേ എന്നാൽ ഓക്കേട്ടോ അങ്ങനെ വിളിക്കാം